ഹലോ

ഡോക്ടർ ശരണ്യ അല്ലേ ആ എനിക്ക് ഒരു പല്ല് വേദന കുറേ ദിവസമായി തുടങ്ങിയിട്ട് എൻ്റെ പേര് തങ്കമണി എന്നാണ് ഇല്ല അറുപത് വയസ്സിൻ്റെ മുകളിലായി എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി കാണിക്കാൻ പിന്നെ ഡോക്ടർ ഏതാണ് നല്ലതായിട്ടൊന്നും കണ്ടില്ല ഞാൻ പിന്നെ മോളെ അടുത്ത് വന്നപ്പോൾ മോൾ പറയുകയാണ് ഇത് ഒരു ശരണ്യ ഡോക്ടർ ഉണ്ട് നല്ല ഡോക്ടറാണ് അമ്മേ എന്ന്

ആ ആ വൈകുന്നേരം രാവിലേയും ഉപ്പുവെള്ളം ഞാൻ കൊള്ളാറുണ്ട് ഈ പല്ല് വേദന വന്നതിൻ്റെ ശേഷം അപ്പോൾ ലേശം കുറവുണ്ടാകും പിന്നെ ആരോ പറഞ്ഞിട്ട് ഞാൻ വെറ്റില മുറുക്കുന്നുണ്ട് പുകയിലയൊക്കെ കൂട്ടിയിട്ട്

വേദന പോകാൻ എന്താണ് ചെയ്യുക

ആ മധുരമുള്ളത് കഴിക്കാൻ പറ്റുമോ ആ പിന്നെ എന്താണ് ഡോക്ടറുടെ വീട് ആ ഡോക്ടറുടെ വീട് എവിടെയാണ്

നാളെ ആ നാളെ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം ഡോക്ടറുടെ അടുത്തേക്ക് ബുക്ക് ചെയ്യണോ ഞാനോ ക്ലോസപ്പ്

ആ ഗുളികയൊന്നും ഇല്ലായിരിക്കുമല്ലേ നാളെ വന്നു കാണിച്ചിട്ട് തരാം ഓക്കെ